വിദ്യാഭ്യാസം മനുഷ്യനെ നല്ല പോലെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വിദ്യാഭ്യാസം എന്താ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നില നിൽക്കാൻ കുറച്ചെങ്കിലും നില നിൽക്കാൻ കഴിയത്തുള്ളൂ പിന്നെന്താ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് സ പറ്റത്തില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം എന്താ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനം സ്ഥാനം കിട്ടത്തുള്ളൂ എല്ലാറ്റിനും ഒരു നില നിൽപ്പുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണം പിന്നെ എന്താ വിദ്യാഭ്യാസം എന്നു വെച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് എല്ലാവർക്കും പിന്നെ പഠിക്കാനോ അതിനും ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തന്നെ ഒരു വിധം നല്ല വിദ്യാഭ്യാസവും എല്ലാതും നമ്മുടെ ഇതിൽ എന്താ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസമെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഗുണമുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസമെന്നു വെച്ചു കഴിഞ്ഞാൽ അപ്പം അത് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുക എന്നത്